ആധുനിക ലോകം വളരെ ഈസിയായിട്ടുള്ളൊരു ലൈഫിനെയാണ് ആഗ്രഹിക്കുന്നത് പൊതുവെ ഈ ജനറേഷൻ അങ്ങനെയാണ് വലിയ ബുദ്ധിമുട്ടുള്ള പരിപാടികളൊന്നും അവർക്ക് താൽപര്യമില്ല ഭാഷ ആയാൽ പോലും അങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റണം വായിക്കാൻ പറ്റണം മലയാള ഭാഷായുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറെ ഏറെ കടുകട്ടിയായ പദങ്ങളുണ്ട് കുറെ ഏറെ അക്ഷരങ്ങളുണ്ട് നമുക്ക് വലപ്പഴും മുതിർന്ന ആളുകൾക്ക് പോലും തോന്നും ഇത്രയേറെ അക്ഷരങ്ങളെന്തിനാന്ന് ചില അക്ഷരങ്ങൾക്ക് ഉപയോഗം എന്താണ് ഈ സംസ്കൃതത്തിന്ന് കടമെടുത്ത മിക്ക അക്ഷരങ്ങൾക്കും മലയാളത്തിലൊരുപകാരവും ഉപയോഗവും ഇല്ല എന്നുള്ളതാണ് സത്യം തമിഴ് പോലെ കുറെ കൂടെ ഒഴുക്കുള്ളൊരു ഭാഷ ആയിരുന്നെങ്കിൽ നമ്മൾക്കിത് കാണാനും കേൾക്കാനും വായിക്കാനും എഴുതാനൊക്കെ കുറെ കൂടി രസം തോന്നുമെന്ന് മുതിർന്നൊരു തലമുറക്ക് പോലും തോന്നാറുണ്ട് അപ്പം തീർച്ചയായിട്ടും വളർന്ന് വരുന്നോരു തലമുറ മുതിർന്ന തലമുറക്ക് സംശയം ഉള്ളിലൊതിക്കിനിന്നു അത് സമയം മുതിർന്ന് വളർന്ന് വരുന്നൊരു തലമുറ എന്തിനാണ് ഈ അക്ഷരങ്ങളൊക്കെ

ഉദാഹരണത്തിന് ഒരു ആക്ഷരത്തിൻ്റെ ഉപയോഗം എന്താണ് ഋഷി ഋഷഭം ഇതൊന്നും ആരും പറയണ വാക്കലല്ലോ അല്ലെങ്കിൽ ജ ജഷം ഇതൊക്കെ ആരു പറയും എന്തിനാണ് ഈ അക്ഷരമൊക്കെ അപ്പം ഈ ഖരാക്ഷരങ്ങളും അതിഖരാക്ഷരങ്ങളും ഒക്കെ അങ്ങനെയുള്ള അക്ഷരങ്ങളൊക്കെ മലയാ ആക്ച്വലി വലിയ ഉപകാരം ഇല്ല അല്ലെങ്കിൽ ഇനി അതിന് ഭാഷാപരമായിട്ട് വലിയതായിട്ട് ചിന്തിക്കുക ചെയ്യുന്ന ആളുകൾക്കതിന് അല്ലെങ്കിൽ ഭാഷ പണ്ഡിതർക്ക് എന്തെങ്കിലുമൊക്കെ വ്യാഖ്യാനങ്ങൾ വിശദീകരണങ്ങൾ ഉണ്ടാവാം സാധാരണ ആളുകള് നോക്കുമ്പോൾ ഇതുകൊണ്ടൊന്നും വലിയ ഉപകാരമോ ഉപയോഗമോ ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ ഭാഷ കുറെ കൂടെ ലൈറ്റാവുക എന്നത് ഒരു ആവശ്യമാണ് കാലത്തിൻ്റെ ആവശ്യമാണ് നമുക്ക്തിനെ ക്ലാസിക് ലാംഗ്വേജ് എന്നൊക്കെ പറയാം പക്ഷേ ഇതിങ്ങനെ ബുദ്ധിമുട്ടുള്ളതായിട്ട് തുടരുന്ന അതിൻ്റെ ഒരു പ്രശ്നം പോക പോക ഇതൊരു ഡെഡ് ലാംഗ്വേജായിട്ട് മാറും സംസ്കൃതത്തിൻ്റെ ആ ഒരു സ്ഥിതി ഇതിനും വരും ഇത് ഉപയോഗിക്കുന്നവൻ്റെ സംസാരിക്കുന്നവരൊന്നും ഇല്ല എന്നുള്ള വ്യവസ്ഥയാവും ഈ കാലം തന്നെ നല്ല മലയാളം എഴുതാനും വായിക്കാനും അറിയാവുന്ന ഒരു തലമുറ കുറവാണ് വളർന്ന് വരുന്നൊരു തലമുറയിലതിനെ അറിയാവുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ് ഇപ്പം ഇപ്പം മധ്യവയസ്കരായിട്ടുള്ള ആളുകള് പോലും നമ്മള് ഡെയിലി ലൈഫില് ഒത്തിരി ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിക്കുന്നവരാണ് നമുക്ക് അതാണ് കൂടുതൽ കംഫർട്ടബിളായിട്ട് കൺവീനിയൻറ്റായിട്ട് തോന്നുക നമ്മള് പറഞ്ഞ് വരുമ്പോൾ അത് ഒഴുക്കു ആവും നമ്മുടെ ഇടയില് വരും കാരണം അത്രമേൽ പ്രത്യേകിച്ച് ഇൻറ്റർനെറ്റും സോഷ്യൽ മീഡിയായും ഒക്കെ വ്യാപകമായതിന് ശേഷം എല്ലാ ആളുകളും ഇത്തരം വാക്കുകള് ഉപയോഗിക്കുന്നുണ്ട് അതിപ്പം മധ്യവയസ്കരായാലും കുറച്ചുംകൂടി പ്രായമായ സീനിയർ സിറ്റിസൺസിൻ്റെ കാറ്റഗറിയിൽ പെട്ടവരായാലും ഇത്തിരി കൂടി പ്രായമായ ഭദ്രാം എന്ന് നമ്മള് പറയണ മനുഷ്യരായാൽ പോലും അവർക്ക് ഇതൊക്കെ വളരെ കോമൺ വേഡ്സാണ് ഞാ ഉപയോഗം കൊണ്ട് അവര് കുഞ്ഞായിരുന്ന കാലത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും പിന്നീടുള്ള കാലം അവര് പഠിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ് വരുന്ന് ഈ വളർന്ന് വരുന്നൊരു ജനറേഷന് അക്ഷരപരിജ്ഞാനം എന്ന് പറയുന്നത് വളരെ കുറവാണ് അവരെ ഗൈഡ് ചെയ്യാൻ പോകുന്ന ആളുകൾക്കും ഈ പറഞ്ഞ പല അക്ഷരങ്ങളും വാക്കുകൾ നമ്മൾ എഴുതുമ്പോൾ ഇതില് അക്ഷരം ഏതാണെന്ന് ഒരു കൺഫ്യൂഷനുണ്ട് കാരണം അത്രയേറെ കോംപ്ലിക്കേറ്റഡായ അക്ഷരങ്ങൾ ഇക്കാലത്താരും പ്രിഫർ ചെയ്യുന്നില്ല ഇപ്പം നമ്മള് ഈ കാലത്തുള്ള പിള്ളേരോടൊരു വാക്ക് തിരുത്തുമ്പോൾ വായിക്കുമ്പോൾ ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ളൊരു വാക്ക് പക്ഷേ ആ വാക്ക് ഇങ്ങനെല്ല ഇങ്ങനാണ് ഇ തന്നെന്ന് പറയുമ്പോൾ അവര് നമ്മളോട് തിരിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് ഇങ്ങനെ എഴുതിയാൽ ഇപ്പം എന്താ പ്രശ്നം മനസ്സിലായിട്ടില്ലേ കാര്യം മനസ്സിലായാൽ പോരെ എന്നുള്ള രീതിയിലാണ് കാരണം ഈ ജനറേഷൻ അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും വിചാരിക്കുക ആസ് സിമ്പിൾ ആസ് പോസിബിൾ അങ്ങനെ അങ്ങ് മനസ്സിലായാൽ പോരെ അത് കാര്യം പിടികിട്ടിയല്ലൊ അതിനിപ്പം ഈ അക്ഷരം തന്നെ വേണമെന്ന് നിർബന്ധം പിടിക്കേണ്ട കാര്യം ഉണ്ടോ എന്നാണ് ഒരു പക്ഷേ ഭാഷ വളരണ ഒരു സംഗതിയായത് കൊണ്ട് തന്നെ ഈ ഒരു ജനറേഷൻ്റെ ചിന്തയില് ഭാഷ എത്ര കോംപ്ലിക്കേറ്റഡാണെന്ന് അവര് വിചാരിക്കുന്നേ ഇല്ല അപ്പം നമ്മളാ ഭാഷയുടെ തനിമ എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചാൽ വരാൻ പോകുന്നൊരവസ്ഥ ഈ ജനറേഷന് ഈ ഭാഷയെ പ്രോത്സാഹിപ്പിക്കില്ല ഇതിലവര് പുതിയതായിട്ട് ഒന്നും എഴുതിക്കുകയോ വായിക്കുകയോ ചെയ്യില്ല പോക പോക ഇത് ഉപയോഗിക്കുന്നവരുടെ എണ്ണം കുറയും അല്ലെങ്കിൽ തന്നെ ഈ നാട്ടിൽ നിന്ന് ഇത്രയും കേരളം പോലെ വളരെ ചെറിയ ഒരു സംസ്ഥാനത്തെ ഇത്ര കുറച്ച് ജനസംഖ്യ ഉള്ള കമ്പാരിറ്റിവിലി ഇന്ത്യയിലെ മറ്റു സ്റ്റേറ്റുകളുമായിട്ട് നോക്കുമ്പോൾ ചെറിയ ജനസമൂഹമുള്ള ഒരടുത്ത് നമ്മൾ ഈ ഭാഷ നമുക്ക് പറ്റുന്നത് പോലെ ഇതിനെ ഒരു സിമ്പിളായിട്ട് ഉപയോഗിക്കുന്ന പ്രവർത്തനങ്ങളും അത്തരം മാർഗ്ഗങ്ങളും നമ്മൾ അവലംബിച്ചില്ലെങ്കിൽ ഈ നാട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വിദേശത്തേക്ക് ആളുകള് പോകുക വിദേശത്തേക്ക് പോകുന്നവരുടെ അടുത്ത തലമുറ എല്ലാം അവിടെ സെറ്റിൽഡാണ് അപ്പം ആ കുട്ടികള് പരമാവധി മലയാളം കേട്ടാൽ മനസ്സിലാകുന്നൊരു ജനറേഷനും അവരുടെ അടുത്ത തലമുറ അത് കൂടിയില്ലാത്തവരുമായിട്ടുമാറും നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം പഠിക്കുന്ന കാര്യങ്ങള് വ്യക്തമായി പഠിപ്പിക്കുക സിമ്പിളായി പഠിപ്പിക്കുക അതായിരിക്കും മലയാള ഭാഷയ്ക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം